ഓക്കെ ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് നല്ലതാണ് ഒത്തിരിയേറെ സേവനങ്ങളൊക്കെ ആരോഗ്യമേഖല ചെയ്യുന്നുണ്ട് പക്ഷേ ഫോറിൻ രാജ്യങ്ങളിലെ പോലെ അത്യാധുനിക സംവിധാനങ്ങളുടെ കുറവ് കൂടുതൽ സിറ്റികളിലേക്കൊക്കെ ചെന്നാൽ എല്ലാ അത്യാധുനിക സംവിധാനങ്ങളോടും കൂടി ആശുപത്രിയൊക്കെ ഉണ്ടെങ്കിലും ഈ നാട്ടിൻ പ്രദേശങ്ങൾ ഹൈ റേഞ്ച് പോലെയുള്ള കുടിയേറ്റ മേഖലകളിൽ കുഗ്രാമങ്ങളിലൊക്കെ ആരോഗ്യ മേഖലയിൽ ഒത്തിരി പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് അതായത് ഹോസ്പിറ്റലിൽ പോലും ഇല്ലാത്ത സ്ഥലങ്ങൾ ഒരു പിന്നെ ക്ലിനിക് സെൻറർ പോലും ഇല്ലാത്ത സ്ഥലങ്ങൾ ഹെൽത്ത് കെയർ സെൻറർ ഇല്ലാത്ത സ്ഥലങ്ങൾ അങ്ങനെ ആശുപത്രി സേവനത്തിനായിട്ട് ഒത്തിരി ദൂരെ വണ്ടിയൊക്കെ വിളിച്ച് പോയി യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇന്ന് നേരിടുന്നുണ്ട് എങ്കിലും ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തെപ്പറ്റി പറയുമ്പോൾ താരതമ്യേന മെച്ചപ്പെട്ടാണ് പിന്നെ ഞങ്ങൾക്ക് ചുറ്റും ഉള്ള ആശുപത്രികളും ക്ലിനിക്കുകളൊക്കെ എങ്ങനെ ഉണ്ടെന്നു ചോദിച്ചാൽ അത്യാവശ്യ സാഹചര്യങ്ങളിൽ മീൻസ് ചെറിയ ചെറിയ രോഗങ്ങൾക്കൊക്കെ വേണ്ട സംവിധാനങ്ങൾ എല്ലാ ഹോസ്പിറ്റലുകളിൽ തന്നെയുണ്ട് പക്ഷേ എങ്കിലും ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിലൊക്കെ കുറേ ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഇപ്പം സീരിയസ്ലി എന്തെങ്കിലും എമർജൻസി കേസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വലിയ വണ്ടിയൊക്കെ വിളിച്ച് ഒത്തിരിയേറെ ദൂരം യാത്ര ചെയ്ത് എറണാകുളം കോട്ടയം പാലാ തുടങ്ങി ടൗൺസിലൊക്കെ പോയിട്ട് മാത്രമേ നല്ലൊരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഞങ്ങൾക്ക് നേടാനായിട്ട് പറ്റാറുള്ളൂ പിന്നെ ഈ ഗ്രാമപ്രദേശമായതിനാൽ തന്നെ ഇവിടെ അത്യാധുനിക സംവിധാനങ്ങളോടു കൂടി ആശുപത്രി ഒന്നുമില്ല ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എം ആർ ഐ സ്കാനിങ് ചെയ്യണമെങ്കിൽ തന്നെ ഒത്തിരിയേറെ ദൂരം സഞ്ചരിച്ച് ഒരു ഹോസ്പിറ്റലിൽ എത്തി അവിടെ രജിസ്റ്റർ ചെയ്ത് ബുക്ക് ചെയ്ത് സ്കാൻ ചെയ്ത് ഒത്തിരിയേറെ വൈകി തിരിച്ച് വീട്ടിലെത്തേണ്ടതായിട്ട് ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് മറ്റൊരു വഴി ഇല്ലാത്ത സാഹചര്യങ്ങളുണ്ട് അങ്ങനെ ഉള്ള വെല്ലുവിളികളൊക്കെ ഈ മേഖലയിൽ നേരിടാറുണ്ട് അതായത് ഇപ്പം തന്നെ ക്യു ക്യൂകൾ ക്യൂ നിന്ന ഹോസ്പിറ്റൽ അതായത് ഒത്തിരിയേറെ ചിലവൊക്കെ നേരിട്ട് ഗതാഗത ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ വലിയ ക്യൂ അതായത് ഇത്ര ദൂരേന്നാണെന്നു പറഞ്ഞാൽ പോലും ഒരു പരിഗണന കിട്ടാത്തൊരവസ്ഥ ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടാക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം വരുമ്പോൾ ഹോസ്പിറ്റൽ മേഖലയിലും ആരോഗ്യ സംരക്ഷണ മേഖലയിൽ മെച്ചപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇപ്പം ഒത്തിരിയേറെ സീരിയസ് എമർജൻസി കേസുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എത്ര പാവപ്പെട്ടവരായാലും പണക്കാരായാലും അവരുടെ ആവശ്യം ഒന്ന് തന്നെയാണ് മീൻസ് എമർജൻസിയാകുമ്പം അത് പണക്കാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ഹോസ്പിറ്റലിൽ അങ്ങനത്തേതായിട്ടുള്ള എന്താ വേർ തിരിവുകൾ കാണിക്കാതിരിക്കുക പിന്നെ ഇപ്പം ദൂരെ നിന്നൊക്കെ വരുന്നൊരു പേഷ്യൻറ്റിനെ കൂടുതൽ പരിഗണിക്കുക അവർക്ക് തിരിച്ച് ഡോക്ടറെ കണ്ടിട്ട് വേണമായിരിക്കും ചിലപ്പം നാട്ടിൽ തിരിച്ചെത്താൻ പക്ഷെ അവരോട് അങ്ങനെ ഒരു മര്യാദ പോലും കാണിക്കാതെ ബിഹേവ് ചെയ്യുമ്പോൾ അവർ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള പരിഗണനങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണെന്നു തോന്നുന്നു